എനിക്കങ്ങനെ വളര്ത്ത് മൃഗങ്ങളെ സത്യം പറഞ്ഞാല് ഇഷ്ടമല്ല കാരണം ഞങ്ങളുടെ വീട്ടില് പണ്ടുമുതലേ അങ്ങനൊരു സംഭവവില്ല തറവാട്ടിലാണെന്നുണ്ടെങ്കിലും അവിടെ അങ്ങനൊരു വളര്ത്ത് എന്താ പൂച്ചകുട്ടികളെ വളർത്തുക കോഴികളെ വളർത്തുക അങ്ങനൊരു സംഭവവുണ്ടായിട്ടേയില്ല അതുകൊണ്ട് തന്നെ ആണെന്ന് തോന്നുന്നു എനിക്കും അതിനോട് വലിയ താല്പര്യവില്ല പക്ഷെ എന്നാലും ഒര് താല്പര്യം തോന്നുന്നത് പൂച്ചേനെ വളര്ത്താനാണ് കാരണം ചില പൂച്ചകളെ കാണാന് ഭയങ്കര രസമായിരിക്കും അവരിങ്ങനെ നമ്മളുടെ പിന്നാലെ ഓടി വരുന്നതും പിന്നെ കളിക്കുന്നതും കാണാൻ ഒരു രസമാണ് കോഴികളെന്ന് പറഞ്ഞാല് അത് നമ്മു വീടിന്റെ അടുത്തുള്ളവര്ക്ക് കോഴികൾ ഉണ്ടായിരുന്നു ഭയങ്കര പണിയാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ടായിരിക്കും അവര് നിൽക്കുക അതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് നമ്മുടെ പക്ഷെ പൂച്ചക്കള് അങ്ങനെ അല്ലല്ലോ നല്ല അവര്ക്കൊരൂ ഒരൂ അച്ചടക്കവുണ്ടാകും ആ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി ഇങ്ങനെ ജീവിക്കുന്നവർ ആയിരിക്കും പട്ടികളാനെന്നുണ്ടെങ്കിലും എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് രൂ കടിക്കാന് വരുമോ അല്ലെങ്കില് മാന്തുമോ നോക്കുക അങ്ങനെ കുറയ്ക്കുമ്പോളൊക്കെ ഭയങ്കര പേടിയാണ് പൂച്ചക്ക് പിന്നെ ആ പ്രശ്നമൊന്നുവില്ലല്ലോ പിന്നെ വേറേ സംഭവങ്ങളക്കെ പൊതുവേ വളര്ത്ത് മൃഗങ്ങളെന്ന് പറയുന്നത് എനിക്ക് താല്പര്യവില്ല അവര് വീടിനകത്തു കയറും അങ്ങനെ എല്ലാം വൃത്തികേടാക്കും എന്നുള്ളൊരു രീതിക്കാണ് എപ്പളും കാണും വീട്ടിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സംസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷെ ഉള്ളവരുവുണ്ട് ഉള്ളവര് അതിനെ നന്നായിട്ട് പരിപാലിക്കുന്നവരും നന്നായിട്ടുണ്ടാവും ഇപ്പം കോഴിക്കളെ വളര്ത്തുന്ന ഇഷ്ടമായിട്ടുള്ള ആള്ക്കാരൊക്കെ ഉണ്ടാവും കാരണം അവര് എന്തൊക്കെ ഗുണങ്ങളുണ്ട് അവരുടെ നമുക്ക് കോഴിമുട്ട തരും പിന്നെ അങ്ങനെ അത് വിറ്റിട്ട് പൈസയുണ്ടാക്കാം നല്ല ബെനഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കില് ഗുണത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കോഴികളെ ഒക്കെ വളര്ത്താം പക്ഷേ എന്റെ കാര്യത്തില് എനിക്ക് വളര്ത്ത് മൃഗങ്ങളെ വളര്ത്തുന്നതില് വലിയ താല്പര്യമില്ല